ആ ആ ആ ആ തേങ്ങ കച്ചവടം ആ

ആ ഇവിടെ നിന്ന് പത്ത് നൂറ് എണ്ണം ഇത് എന്നത്തേക്കാണ് ഈ കല്ല്യാണം കാരണം ആ നമ്മളിത് ദൂരെ ഒക്കെ പോയി കൊണ്ടുവരുന്നത് ആണ് അപ്പം ഇത്രയും എണ്ണമൊക്കെ ഒരുമിച്ച് പറയുമ്പോഴത്തേക്ക് അതു നേരത്തെ പറയണം എങ്കിലേ അത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ആ പത്തു ദിവസത്തിന് ഉള്ളിൽ നൂറ് നൂറ് തേങ്ങ അല്ലേ ഓക്കേ ഓക്കേ ആ നൂറ് എങ്ങനത്തെ ആ അതൊക്കെ കുഴപ്പമില്ല ആ അമ്പത് എണ്ണം നൂറ് എണ്ണം വരെ ഒക്കെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് അതിൽ കൂടുതലൊക്കെ വന്നെങ്കിലെ ഉള്ളൂ പുറത്തുനിന്ന് പെട്ടെന്ന് പക്ഷെ അത് നേരത്തെ പറയണം ഒന്ന് ഇത് ഇപ്പോൾ നൂറ് എണ്ണം മതി നൂറ്റമ്പത് എണ്ണം മാക്സിമം ആ അത് ആ സമയത്ത് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും കുഴപ്പമില്ല അപ്പോൾ തേങ്ങ ഇതുമാത്രം മതിയോ എന്നു വച്ചാൽ തേങ്ങ മാത്രം അതോ പൊതിച്ചത് ആണോ അതോ പൊതിക്കാത്ത അതിപ്പോൾ തന്നെ അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യും നമുക്ക് ഇപ്പം ചില ചില ആളുകൾക്ക് തൊണ്ട് തൊണ്ട് വേണം എന്നു പറയുന്നവർക്ക് പൊതിച്ച് തൊണ്ടും സെപ്പറേറ്റ് കൊടുക്കും ആ തേങ്ങയും കൊടുക്കും അതാണ് അല്ല അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം എത്തിച്ചു തരാം ഇത്രയും ഉള്ളതുകൊണ്ട് എത്തിച്ച് തരാം വണ്ടിയുടെ ചാർജ് കൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ നമ്മൾ കിലോയ്ക്ക് ഒരു മുപ്പത്തിമൂന്ന് രൂപ ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് എന്തായാലും ആ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് തരാം അതിന് ഇപ്പം ആ ഇത് ആ ഓക്കേ അതു കുഴപ്പമില്ല അതു കുഴപ്പമില്ല അതു നേരിട്ട് വന്നാൽമതി ഓ ഓക്കേ ഓക്കേ അതു കുഴപ്പമില്ല അതൊക്കെ ആ കുറച്ചൊക്കെ തരാം അതിൽ പ്രശ്നം ഒന്നും ഇല്ല ആ നേരിട്ട് വന്നാൽമതി ഓക്കേ വേണ്ട വേണ്ട വന്നാൽമതി നേരെ വന്നാൽമതി ഓക്കേ ശരി ഓ ഓ